ഫോട്ടോഗ്രാഫി ഒരു വിനോദവിദ്യയായി കൊണ്ടുനടക്കാനുള്ള പ്രചോദനം എന്നു പറയണത് എൻ്റെ ഒരു കസിനുണ്ട് ആ കസിൻ ആൾ ഫോട്ടോഗ്രഫിയായിരുന്നു അപ്പോൾ ആ അയാളോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടാനുള്ള പ്രചോദനം എന്ന് പറയണത് നല്ലൊരു നമുക്ക് എവിടെപ്പോയാലും പിന്നെ അതുപോലെത്തന്നെ എനിക്കൊരു ഫ്രണ്ട് ഫ്രണ്ടെന്നു പറയാൻ പറ്റില്ല എൻ്റെയൊരു ആ ഫ്രണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതും നല്ലൊരു ഫോട്ടോഗ്രഫിയായിരുന്നു ഒരു നമ്മളതിനോട് പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാദ്യം വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ഇതിനോട് എന്താണ് ഇതിലേക്ക് പോവാനുള്ള കാരണം എന്താണ് ഫോട്ടോഗ്രാഫിയിനോട് കൂടുതലായിട്ട് അടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ആ ആ രണ്ടുപേരും പറഞ്ഞത് ആദ്യം ഞങ്ങൾ ചെറുതായി ചെറിയ രീതിയിലൊക്കെയാണ് ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത് ചെറിയ രീതിയിലാണ് എന്താണ് ഫോട്ടോയൊക്കെ എടുത്ത് തുടങ്ങിയത് പിന്നെ പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് മനസ്സിനിണങ്ങിയ ഒരു ഫോട്ടോ എടുത്തുതുടങ്ങി അങ്ങനെയാണ് അതിലേക്കൊരു പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അവർ ആ ഒരു ഫോട്ടോഗ്രാഫി വിനോദ വൃത്തിയായിട്ട് കൊണ്ടുനടന്നതുതന്നെ കൊണ്ടുനടക്കാനുള്ള കാരണം അതൊക്കെക്കൊണ്ട് തന്നെയാണ് എന്താണ് അതിനോടുള്ളൊരു താല്പര്യം ഫോട്ടോഗ്രാഫിയിനോടുള്ളൊരു താൽപര്യം കൊണ്ടിട്ട് മാത്രമാണ് അവരതിനെ കൊണ്ടുനടക്കുന്നത് പിന്നെയെന്താ പറയുക ഫോട്ടോഗ്രഫി